എൻ്റെ പ്രദേശത്ത് ഏറ്റവും കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്ന ഡാറ്റാ പ്ലാൻ എന്ന് പറയുന്നത് വി ഐ എയർടെൽ ജിയോ തുടങ്ങിയവയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എയർടെല്ലിൻ്റെ ഡാറ്റാ പ്ലാൻ ആണ് എൻ്റെ അച്ഛനും അമ്മയും ഉപയോഗിക്കുന്നത് വി ഐയുടെ ഡാറ്റാ പ്ലാൻ ആണ് ഡാറ്റാ പ്ലാൻ ഞാൻ ഉപയോഗിക്കുന്നത് ചില മാസങ്ങളിൽ രണ്ട് മാസത്തേക്ക് ഒരുമിച്ച് അഞ്ഞൂറ്റി നാൽപത്തിയൊൻപത് രൂപെൻ്റെ എയർടെല്ലിൻ്റെ ഡാറ്റാ പ്ലാൻ എടുക്കും അത് രണ്ട് ജി ബി ഡെയിലി നെറ്റും കൂടാതെ അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് മെസ്സേജും ആണ് രണ്ട് മാസത്തേക്കുള്ള അഞ്ഞൂറ്റി നാൽപത്തിയൊൻപത് രൂപേൻ്റെ ഡാറ്റാ പ്ലാനിലുള്ളത് അല്ലെങ്കിൽ അതല്ലെങ്കിൽ രണ്ട് മാസത്തെ ഡാറ്റാ പ്ലാൻ എടുത്തിട്ടില്ലെങ്കിൽ ഒരു മാസത്തെ ഡാറ്റാ പ്ലാൻ എടുക്കുമ്പം അത് ഇരുനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഡാറ്റാ പ്ലാൻ എടുക്കും അത് ഒരു വൺ പോയിൻറ്റ് ജി ബി ഓരോ ദിവസവും മാസത്തിൽ എല്ലാ മാസവും മുഴുവനും ലഭിക്കും കൂടാതെ അൺലിമിറ്റഡ് കോൾ അൺലിമിറ്റഡ് മെസ്സേജ് തുടങ്ങിയവയൊക്കെ ലഭിക്കും ഇത് എൻ്റെ എയർടെല്ലിൻ്റെ ഡാറ്റാ പ്ലാൻ ആണ് അല്ലെങ്കിൽ ഇടയ്ക്ക് മറ്റേ വൈഫൈ വീട്ടിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ